എന്നെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണെന്നു പറഞ്ഞാൽ ഞാന് പഠിച്ചത് അല്ലെങ്കിൽ വളര്ന്നതൊക്കെ ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പോൾ നോക്കുകയാണെന്നു പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാണാനും ഭംഗിയുള്ള നല്ല ഈ പാടങ്ങളും കുന്നുകളും പിന്നെ കൃഷിയിടങ്ങളും പുഴ ചെറിയ രണ്ടു കുളം അങ്ങനെയുള്ള ഒരു ലോക്കല് അത്യാവശ്യം നല്ലൊരു ഗ്രാമം തന്നെയാണ് കാണാന് അത് വലിയ കമ്പനികളോ കാര്യങ്ങളോ ഒന്നുമില്ല ചുറ്റുവട്ടത്തും കാടല്ല എന്നാൽ പക്ഷെ നമുക്ക് കാണാന് ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുടെ ഒരു നടുവിൽ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാന് പറ്റും നല്ല ഒരു പഴയ മോഡല് തറവാട് വീടാണ് എന്റെ അത് അത്ര വലിയ വീടൊന്നുമല്ല ചെറിയ ചെറിയ ഒരു വീട് തന്നെയാണ് അതിലിപ്പോൾ വീട്ടിൽ രണ്ട് മൂന്നാല് മൂന്നു മുറികളാണുള്ളത് ആ രണ്ടുമുറിയിൽ ഒരു മുറിയിൽ അച്ഛനും അമ്മയും പിന്നെ ഞാൻ ഏട്ടന് അനിയത്തി അങ്ങനെയാണ് ഞങ്ങള് ഉള്ളത് വീട്ടിൽ അപ്പോൾ അതിൽ ഏട്ടന് ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ജോലി ഒക്കെ ചെയ്യുന്നുണ്ട് അനിയത്തി ഇപ്പോൾ അവളെന്താ പറയുക ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ പി ജിക്ക് നോക്കിക്കൊണ്ടിരിക്കുണ്ട് ഞാനിപ്പോൾ ജോലി ചെയ്യു ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യാനുള്ള ഒരു സെറ്റപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ എനിക്കിപ്പോൾ ഫീല്ഡിൽ പല എന്താ പറയുക എനിക്ക് രണ്ടു മൂന്നു ഫീല്ഡുകളിലാണ് താല്പര്യം അതിനു മെയിന് ആയിട്ട് ഡ്രൈവിംഗ് ഫീല്ഡ് ആണ് എനിക്ക് കൂടുതല് താല്പര്യം ഉള്ളത് അപ്പോൾ ഡ്രൈവിംഗ് ഫീല്ഡ് എങ്ങനെയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെവി ലൈസന്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലോറിയിലും കാര്യങ്ങളിലും ഒക്കെ പോകുവാൻ ആണ് എനിക്ക് താല്പര്യം അപ്പോൾ കൂടെ രണ്ട് ഏട്ടന്മാരുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പരിചയത്തിലുള്ള രണ്ടു ഏട്ടന്മാരുണ്ട് അവർ ലോറിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒരാളുടെ ഒപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകാറുണ്ട് അപ്പോൾ ആളുടെ ഒപ്പം ആളിങ്ങനെ പോവുമ്പോൾ രാത്രിയൊക്കെ ഡ്രൈവ് ഒക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യം വണ്ടി കൈയ്യിൽ കിട്ടുമ്പോൾ ഒതുങ്ങി ഓടിക്കാനൊക്കെ അത്യാവശ്യം അറിയുന്നുണ്ട് എനിക്ക് ഡ്രൈവിംഗ് ഫീല്ഡ് ഭയങ്കര ഇഷ്ടമാണ് എന്താ അത് അവ അങ്ങനെ പോവുമ്പോൾ സ്ഥലങ്ങൾ കാണുക പിന്നെ നമുക്ക് ഈ ഡ്രൈവിംഗ് ഇഷ്ടം എന്നു പറയുമ്പോൾ ചെറിയ വണ്ടിയല്ല മറ്റേ ഇങ്ങനത്തെ വലിയ ലോറികള് പോലത്തെ വലിയ വണ്ടികൾ അതു നമ്മൾ കുറച്ച് എന്താ പറയുക ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കുമ്പോൾ അതിന്റെ ഒരു പവര് വേറെയാണ് ഏഹ് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ പിന്നെ വേറെ ഇഷ്ടങ്ങൾ നമുക്ക് എന്താ പറയുക ഈ പാട്ട് കേൾക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നേ അതിൽ കൂടുതലായിട്ട് വലിയ ലക്ഷ്യം അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഒരു നല്ലൊരു വീട് ഇപ്പോഴത്തെ വീട് മാറ്റി അവിടെ നല്ല വീട് വയ്ക്കണം പിന്നെ അച്ഛനേയും അമ്മയേയും ഒക്കെ നന്നായിട്ട് നോക്കണം പെങ്ങളെ കല്യാണം കഴിച്ചു വിടണം അങ്ങനെയൊക്കെയാണ് ലക്ഷ്യങ്ങൾ വേറെ വലിയ ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജീവിതത്തിൽ